ഹലോ സാറിത് പാസ്പോർട്ട് ഓഫീസല്ലേ സാറെ ഞാൻ കഴിഞ്ഞ ദിവസം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പാസ്പോർട്ടിനായിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തന്ന റെസീപ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി അത് എൻ്റെ കയ്യിൽ നിന്നു പോയി അപ്പോൾ എനിയിപ്പോൾ എന്താ ചെയ്യാൻ കഴിയുക ഞാൻ ഇപ്പോൾ പാസ്പോർട്ട് ഓഫീസിലേക്ക് വരണോ അതോ അക്ഷയ വഴി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ഞാനെന്താ സാറെ ചെയ്യണ്ടേ ആ സാറെ ഓക്കെ ഓക്കെ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ആ സാറെ ഓക്കെ ഓക്കെ അത് എൻ്റെയൊരു സുഹൃത്തിൻ്റെ കയ്യിലായിരുന്നു ഈ അപേക്ഷാ ഫോമ് അപ്പോൾ അത് സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി ഞാൻ അവൻ്റെ അടുത്ത് കൊടുത്തത് ആയിരുന്നു അപ്പോൾ അവൻ്റെ അടുത്തു നിന്ന് നഷ്ടപ്പെട്ടുപോയി ആ കുഴപ്പമില്ല സാറെ ഞാനിപ്പം പാസ്പോർട്ട് ഓഫീസിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇപ്പോൾ അക്ഷയ വഴിയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തുകൊള്ളാം എനിക്കത് കുഴപ്പമില്ല ആ സാറെ ഓക്കെ ഓക്കെ ഓക്കെ ആ അത് ചെയ്യാം ചെയ്യാം ചെയ്യാം ഓക്കെ സാറെ ഓക്കെ ഓക്കെ ഇനി ഞാൻ അങ്ങനെ ചെയ്തുകൊള്ളാം ഓക്കെ ഓക്കെ ഓക്കെ